എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല സൈക്കിള് എനിക്ക് ഇഷ്ടമാണ് ഞാന് നമ്മുടെ നമുക്ക് ഇവിടെ കാർ പാർക്കിൻ്റെ ഷെഡ് ഉണ്ടല്ലോ അതിൽ തന്നെ സൈക്കിള് നിർത്തി വെക്കുക അതിന് പ്രത്യേകിച്ച് പരിപാലനം ഒന്നും വേണ്ട നമുക്ക് ചെയിൻ മാത്രമാണ് ചെയിൻ ആണ് നമുക്ക് ഇടയ്ക്ക് പ്രശ്നം പിന്നെ ബ്രേക്കും വേറെ അതിന് നമ്മള് പൈസ മുടക്കി ഒത്തിരി പൈസ മുടക്കണ്ട ആവശ്യം ഒന്നും വരുന്നില്ലാത്ത ചിലവ് ചുരുക്കി പിന്നെ നമുക്ക് കാറ്റടിക്കുക കാറ്റടിക്കുന്ന ഒരു ഇത് ഉണ്ടെങ്കില് നമുക്ക് എത്ര നാള് വേണമെങ്കിലും കാറ്റടിക്കാം അതിന് വലിയ മടുപ്പൊന്നും തോന്നുന്ന ഒരു കാര്യമല്ല പിന്നെ ബൈക്കിലെ യാത്ര എനിക്ക് മ മടുപ്പിക്കാറില്ല എനിക്ക് ഇഷ്ടമാണ് ബൈക്കില് എനിക്ക് ഏറ്റവും ഇഷ്ടം കേ റ്റി എം മാണ് ബൈക്ക് യാത്ര എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതിപ്പം ബൈക്ക് ബുള്ളറ്റിലായാലും ഹിമാലയത്തിലായാലും നമ്മളുടെ സാധാരണ പൾസറിലായാലും ഡ്യൂക്കിലായാലും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് അതിപ്പം നമ്മള് ഹെൽമെറ്റ് വെക്കണം ബൈക്കിലാകുമ്പോൾ നമ്മള് ഹെൽമെറ്റ് വെക്കണം നമുക്ക് സൈക്കളിലും ഉണ്ട് കെട്ടോ ഹെൽമെറ്റ് ഇപ്പം ആ അപ്പം നമ്മള് നന്നായിട്ട് സൂക്ഷിച്ചും കണ്ടും ഓടിച്ചാൽ നമുക്ക് കുഴപ്പമില്ല നമ്മള് സ്പീഡില് പോകാതെ നമ്മള് നമ്മുടെ മിനിമം സ്പീഡിൽ പോകുക നമുക്ക് നമ്മള് വലിയ സ്പീഡില് എടുത്ത അഭ്യാസം കാണിക്കുമ്പോഴാണ് പല ആക്സിഡൻറ്റ്കളും ഉണ്ടാകുന്നത് അതിപ്പം എങ്ങനെ ആയാലും സൈക്കിള് നല്ലതാണ് സൈക്കിള് ഇപ്പം ഗിയർ ഒക്കെ ഉള്ള നല്ല സൈക്കിൾ ഒക്കെ വന്ന് തുടങ്ങി പന്ത്രണ്ട് ലക്ഷത്തിൻ്റെയും ഒമ്പത് ലക്ഷത്തിൻ്റെയും സൈക്കിൾ ഇപ്പം വിപണിയിൽ ഉണ്ട് സൈക്കിൾ നല്ലൊരു ഇതാണ് അതേപോലെ തന്നെയാണ് നമുക്ക് പിന്നെ അത് പരിപാലിക്കാനും എളുപ്പമാണ്